ഫോട്ടോഗ്രാഫി ആ മേഖല എനിക്ക് വളരേ ഇഷ്ടപ്പെട്ട മേഖലയാണ് തതേതി നമ്മൾ പഠിയ്ക്കണ ടൈം മുതലേ ഇപ്പം നമ്മൾ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മടടുത്തൊരു ക്യാമറ ഉണ്ട് കാനോൺ ഫെവ് ഡീ ക്യാമറ ഉപയോഗിച്ചാണ് നമ്മൾ മിക്കവാറും ഫോട്ടോ എടുക്കല് പിന്നെ മൊബൈലിൽ മൊബൈലിലും ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പൊൾ നമുക്ക് ഇവിടത്തൊരു ഫോട്ടോ എടുത്തു വെക്കാം മറ്റ് അവസരം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫീ ഇഷ്ടപ്പെടുന്നുണ്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ഫോട്ടോയൊക്കെ നമ്മളൊക്കെ സേവ് ചെയ്ത് നമ്മുടേ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പം അതിനൊക്കെ നല്ല ലൈക്കും ഒക്കെ കിട്ടലുണ്ട് ഫോളോവേർസൊക്കെ കുറേ ഉണ്ട് ഫോട്ടോഗ്രാഫീ നമ്മളുടെ പഴയ ഓർമ്മകൾ ഇങ്ങനെ നിലനിർത്താതെ ഫോട്ടോഗ്രാഫിയെ പഴയകാല ഓർമ്മകളൊക്കെ നിൽക്കാൻ നല്ല ഇതായതാണെനിക്ക് തോന്നണെ അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫിയുടെ ഫോട്ടോഗ്രാഫി വലിയ ഇഷ്ടപ്പെട്ടു കൊണ്ടുനടക്കണെ പിന്നെ മൊബൈലിൽ ഫോട്ടോ എടുക്കലുണ്ട് വീഡിയോയൊക്കെ എടുക്കലുണ്ട് അതൊക്കെ നമ്മൾ റീലൊക്കെ ആക്കി മാറ്റിയിട്ട് ഫേസ് ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല പ്രോത്സാഹനം കിട്ടലുണ്ട് ഫോട്ടോഗ്രാഫ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മേ നമ്മളൊരു ജീവിതാ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ളൊരു ഉപാധിയായിട്ട് ഫോട്ടോഗ്രാഫീനെ സെലക്റ്റ് ചെയ്യാനുള്ള കാരണം